ആ എനിക്ക് എനിക്ക് നല്ല ചുമയും തലവേദനയൊക്കെ ഉണ്ടായിരുന്നു മാം രണ്ട് ദിവസമായി തുടങ്ങിയിട്ട്

ഭയങ്കര തലവേദനയും തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു കാലും ഭയങ്കര മേലൊക്കെ ഭയങ്കര വേദനയാണ് ബോഡിയൊക്കെ ഭയങ്കര രണ്ട് ആ തലകുനിക്കുമ്പോൾ ഭയങ്കര വേദനയാണ് ആ കഫക്കെട്ട് ആ കണ്ണിൻ്റെ ഇവിടെ ഇവിടെ ഇടയിൽ മൂക്കിൻ്റെ മേലെ അവിടെയൊക്കെ ഭയങ്കര വേദനയാണ് ആ മഴ ചെറുതായിട്ട് ഇല്ല വേറെയാർക്കും ഇല്ല ഇല്ല ആ ക്ലാസ്സിൾ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ഇല്ല ഇല്ല അത് ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇല്ല ആ ഞാൻ പനി കുറവില്ലാത്തതുകൊണ്ട് മെഡിക്കൽസിൽ നിന്ന് പാരസെറ്റമോളോക്കെ എടുത്തിരുന്നു പറഞ്ഞ് മേടിച്ചതായിരുന്നു അഞ്ഞൂറ് എം ജിയിൻ്റെ

ആ പനി നന്നായിട്ടുണ്ട് തൊണ്ടവേദനയും തലവേദനയും ഒക്കെ നന്നായിട്ടുണ്ട് ആ കുഴപ്പമില്ല വരാം

ആ ശരി മാം